ഹലോ ആ ആ ഞാന് കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പിന്നെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ ലാൻഡ് വിൽപ്പനക്കുണ്ട് അത് അന്വേഷിച്ച് വിളിക്കുന്നതായിരുന്നു എനിക്ക് ഒരു ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം വേണം അതും അധികം റേറ്റിൽ വേണ്ട കൊ കുറച്ച് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ മതി ഒരു അമ്പത് ലക്ഷം രൂപ ആ പക്ഷേ ടൗൺ ഏരിയയിൽ വേണം ടൗൺ ഏരിയയിൽ തന്നെ ആ ആ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അറിവിൽ ഉണ്ടോ ഒരു ടൗ ടൌൺ എന്ന് വെച്ചാൽ അധികം ഉള്ളിലോട്ടും പോവേണ്ട എന്നാൽ ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറി എനിക്ക് പിന്നെ ഓഫീസിലൊക്കെ പോവാൻ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ സ്കൂളിലത്തെ കുട്ടികൾ പെട്ടെന്ന് പോവണമല്ലോ അപ്പോൾ ഉൾ ഏരിയയിൽ ആവുമ്പോൾ ആ ആ ഞാന് ആ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ നിങ്ങൾ ഒന്ന് ഇരുപത്തഞ്ച് സെൻറ് ഒന്ന് നോക്കുവോ ഒരമ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടുവോ എന്ന് പിന്നെ ഇപ്പോൾ വീട് എടുക്കുവോ ആ വീട് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് മണ്ണിട്ട് പൊന്തിക്കാനൊക്കെ പൊന്തിക്കാം പക്ഷേ നല്ലൊരു ഒരു കുറച്ച് ടൗൺ ഏരിയയിൽ തന്നെ വേണം എന്നുണ്ട് പിന്നെ അധികം കുറച്ചൊരു നിരന്ന സ്ഥലം ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ അത് റെഡി ആക്കി എടുത്തോളാം പക്ഷേ എങ്കിൽ ഈ ഒരു റേറ്റിൽ വാ കിട്ടിയാൽ കൊള്ളാമായിരുന്നു വീടും സ്ഥലവും അതും ഒന്ന് നോക്കാം എനിക്ക് ലാൻഡ് ആയിരുന്നു വേണ്ടത് ഞങ്ങൾക്ക് ഒരു ഞങ്ങളെ ഒരു പ്ലാനിലൊരു വീട് എടുക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു അപ്പോൾ ഒരു കോട്ടേഴ്സ് ആ എന്നാലും കോ ആ എന്നാലും കുഴപ്പമില്ല എനിക്ക് ഒരു ചെറിയ ഒരു മേലെ ഭാഗം എടുത്തിട്ട് രണ്ട് നില എടുത്തിട്ട് മേലെ ഒരു കോട്ടേഴ്സ് ആക്കിയിട്ട് റെൻറ്ന് കൊടുക്കാൻ പിന്നെ താഴെ എൻ്റെ വീട് എടുക്കാനും ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ സെറ്റിൽ ആവാൻ ഒന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ആ എന്നാൽ ആ ആ എന്നാൽ കാണാം പോയിട്ടൊന്ന് കാണാം

ആ വിളിക്കാം വിളിക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ പോരേ ആ ആ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ പോരേ ഉച്ച വരെ ഒരു ഫ്രീ ആയിട്ടുള്ള ആ ആ ആ ആ എന്നാൽ ഓ ആ എന്നാൽ ഓക്കെ